ഹലോ ഞാൻ ആ കുറച്ച് മുന്നേ ഒരു ഓർഡറിനായിട്ട് വിളിച്ചിട്ട് ഉണ്ടായിരുന്നു ഒരു ഇരുപത് പേർക്കുള്ള ചിക്കൻ ബിരിയാണിയും ആ അൽഫാമും പിന്നെ ഒരു ഇരുപത് പിസ്താ ഷെയ്ക്കുമാണ് ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് അതിലെ അൽഫാം കയാൺസൽ ക്യാൻസൽ ചെയ്യണമായിരുന്നു അൽഫാം വേണ്ട ഇരുപത് ചിക്കൻ ബിരിയാണി ഇരുപത് ഷെയ്ക്കും പിസ്താ ഷെയ്ക്കും ആയിട്ട് ഒരു ഒരു റ്റൂ ഹവേഴ്സിന് ഉള്ളിൽ ഞാൻ പറഞ്ഞ ലൊക്കേഷനിലോട്ട് കൊണ്ടു വന്നാൽ മതി അൽഫാം ക്യാൻസൽ ചെയ്തോളൂ അതെന്തായാലും വേണ്ട പെയ്മെന്റ് ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്യാം